ഈ കാലത്ത് ട്രാവലിങ് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ബൈക്കിങ്ങ് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് റൈഡർമാരുമായിട്ട് പരിചയം ഉണ്ടാക്കുക അതൊന്നും വലിയ ഒരു റിസ്ക്കുള്ള കാര്യമല്ല കാരണം അതിന് ഒരുപാട് വഴികൾ ഈ കാലത്തുണ്ട് അതിൽ ഏറ്റവും നല്ല വഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റികളാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള പേജുകൾ കമ്മി അതുപലെ ഫേസ്ബുക്ക് കമ്മണിറ്റാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം യാത്ര ഇഷ്ടപ്പെടുന്ന പേ ആൾക്കാരുടെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന റൈഡേഴ്സ് കമ്മ്യൂണിറ്റി നിരവധി കമ്മ്യൂണറ്റികൾ ഫേസ്ബുക്കിൽ ഇപ്പം തന്നെ നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റൈഡേറുമായിട്ട് ബന്ധപ്പെടണം എന്നുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ ജെസ്റ്റ് ജോയിൻ ചെയ്യുക സെർച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിലൊന്ന് ആ ഒരു കമ്മ്യൂണിറ്റിൽ ജെസ്റ്റ് ഒന്ന് ആക്റ്റീവ ആകുമോ ഒന്ന് രണ്ട് പോസ്റ്റ് ഇടുക അതിലേക്ക് അതിൽ ചിലപ്പോൾ റേഡേഴ്സ് വന്ന് കമെൻറ് ഒക്കെ ചെയ്യും അല്ലെങ്കിൽ വേറേയുള്ള ആൾക്കാർ എന്തായാലും അവരോട് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ അതിൽ പോയിട്ടൊന്ന് കമൻന്റ് ഇടുക എന്നിട്ട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാൻ പറയാം അങ്ങനെ വളരെ എളുപ്പത്തിൽ എന്താവാം നമുക്ക് ഈ കാലത്ത്കാരുമായിട്ട് ബന്ധപ്പെടാം അതുപോലെ തന്നെയാണ് ഈ റൈഡർമാരുമായിട്ടും യാത്രാ സംഘങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഒറ്റക്ക് ബേക്ക് ചെയ്യുന്നത് ഓടിക്കുന്നത് അത് എനിക്ക് അതണൊന്നും കൂടി ഇഷ്ടം എന്നുള്ളതാണ് ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീഡ ഉണ്ട് നമ്മുടെ സ്പേസ് ആണ് ഫുള്ള് നമ്മളാണ് മറ്റേത് ചിലപ്പോൾ ബാക്കിൽ നമ്മുടെ കൂടെ ഒരാൾ ഒക്കെ ഇരുത്തി പോകുമ്പോൾ അവൻ പറയുക എടാ ബ്രേക്ക് പിടിക്ക് എടാ ബ്രേക്ക് പിടിക്ക് എടാ സ്പീഡ പോകല്ലേ അത് നോക്ക് ഇത് നോക്ക് സീ അങ്ങനൊരു ഇത് വരും അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ടാകും പക്ഷേ അവൻ അവൻ്റെ രീതിയിലൊരു കയറിങ് എന്നോ എന്ത് വേണേലും അവനെ വിളിക്കാൻ ഒരു സംഭവം ചെയ്യുന്നുണ്ടാകും അപ്പോൾ അത് പലപ്പോഴും അസഹനീയമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇറിറ്റേറ്റിങ് ആയിട്ടോ ഒക്കെ ഫീല് ചെയ്യാം അതുപോലെ ഒറ്റക്ക് പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളു അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അത്രയും വിശാലമായിട്ട് ഇരുന്നിട്ട് നല്ല കംഫർട്ട് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി ഓടിച്ച് പോകുക എന്ന് പറയുന്ന ആ ഒരു കംഫർട് ഉണ്ടല്ലോ ആ ഒരു ഫീൽ ഒരിക്കലും നമ്മൾ വേറെ ഒരാൾ ഒപ്പം പോകുന്ന സമയത്ത് കിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ബേക്ക് യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം പക്ഷേ അത് വെച്ചിട്ട് ബേക്ക് സംഘങ്ങളുടെ കൂടെ പോകുന്നതിനോട് എതിർപ്പ് അല്ലെങ്കിൽ തീരെ പോയില്ല അങ്ങനെയല്ല രണ്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷേ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം ബേക്ക് യാത്ര സംഘങ്ങളായിട്ട് പോകുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സ് വേറേ ഉണ്ട് അതിന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാങ്ങ് ആയിട്ട് ഒരു വൈബ് ആയിട്ട് ഒരേ റൂട്ടിൽ യാത്ര ചെയ്ത് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്ത് വഴിയിലൊക്കെ ഒന്ന് തമ്പടിച്ച് ഒരുമിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ വൈബ് ആക്കിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന യാത്രാ സംഘങ്ങൾ അതും നമ്മൾ ലോങ്ങ് ട്രിപ്പ് ഒക്കെ ബേക്കിൽ ഓടിക്കുന്നത് അതൊക്കെ ഗ്രൂപ്പ് ആയിട്ട് പോകുന്നത് നല്ല ഒരു വ്യത്യസ്ത അനുഭവം തന്നെ ആയിരിക്കും അപ്പം രണ്ടും ബെസ്റ്റ് ആണ് പക്ഷേ എനിക്ക് ബെസ്റ്റ് ആയിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒറ്റക്ക് പോകുന്നതാണ് എനിക്ക് ഒന്നും കൂടി കംഫർട്ട് എന്നുള്ളതാണ് പറയാനുള്ളത്